പരമ്പരാഗത നൃത്ത രൂപങ്ങൾക്ക് ഇന്ത്യൻ സംസ്കാരത്തിൽ പ്രാധാന്യമുള്ളതിന് കാരണം നമ്മുടെ പൂർവികരായ ആളുകളൊക്കെയും ആ കലയേയും ആ നൃത്ത രൂപത്തേയും അതിനെയൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അതുപോലെ തന്നെ അതിന് ഒരുപാട് പ്രാധാന്യം കൽപ്പിച്ചി രുന്നു എന്നു തന്നെയണ് അതിൻ്റെ ഉത്തരം അവർക്ക് അത് വെറും ഒരു കല ആയിരുന്നില്ല കാരണം അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗം കൂടി ആയിരുന്നു തുടർന്നു ഒരുപാട് കലാരൂപങ്ങൾ ഉടലെടുകുകയും അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് നൃത്തരൂപമാവുകയും ചെയ്യുക ഉണ്ടായി പിന്നീട് ഒരു നല്ല പരമ്പരാഗത നർത്തനാകാൻ എന്ത് ഗുണങ്ങളാണ് ആവശ്യമെന്ന് ചോദിച്ചാൽ ആ കലയെ ഒരുപാട് ഇഷ്ടപ്പെടണം അതുപോലെത്തന്നെ ആ കലയോടും ആ കലാകാരനോടും നമ്മുടെ സമൂഹത്തിന് ഒരു വില ഉണ്ടാവണം അതുപോലെ തന്നെ അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും അതിന് ആഴത്തിൽ അറിയാനുമൊക്കെ ഉള്ള ഒരു കഴിവും മനസ്സും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഒരു നൃത്തനാകാൻ നർത്തകനാകാൻ കഴിയുകയുള്ളു തീർച്ചയായും ഇന്ന് പലപ്പോഴും പലർക്കും അതുണ്ട് ചിലർ കലയെ ഒരുപാട് സ്നേഹിക്കുന്നു ചിലവർ അത് തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ കല കലയെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ കൂട്ടത്തിലുണ്ട്